വ്യാകരണവും ഉച്ചാരണവും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കൂടുതൽ ഉപയോഗിച്ചിട്ട് ഉള്ളത് ഇപ്പോൾ കൂടുതലും കുട്ടികൾ ഉപയോഗിക്കുന്നത് മലയാളത്തിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷാണ് അപ്പം അവർക്ക് ഈ വ്യാകരണം എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് അത് മനസ്സിലാവില്ല പിന്നെ ഉച്ചാരണം ഇപ്പം വ്യക്തി അത് വാ വെക്കതി എന്നും പറയും പക്ഷേ ചിലവര് വെക്ക്തി എന്ന് പറയും ചിലർ വ്യക്തിയെന്ന് പറയും ഉച്ചാരണം രണ്ടും രണ്ട് രീതിയിൽ ആണ് എങ്കിലും അതേപോലെ തന്നെ പല രക്തം രക്തോന്നും പറയും രക്തമെന്നും പറയും അത് പക്ഷെ ഉച്ചാരണം രണ്ട് രീതിയിലാണ് പക്ഷെ അർത്ഥം ഒന്നാണ് അതേപോലെ തന്നെ വ്യാകരണം നമ്മൾ എല്ലാ രീതിയിലും മലയാള ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വ്യാകരണവും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ ഇപ്പഴത്തെ കുട്ടികൾ കൂടുതലും ഇംഗ്ലീഷാണ് അവരുടെ മാതാപിതാക്കളും ഇംഗ്ലീഷിനോടാണ് കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്